ഹലോ ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ ഫുഡ് ഓഡർ ചെയ്തിരുന്നു എനിക്ക് നിങ്ങൾ കൊണ്ടുതന്ന ഫുഡ് അത്ര നല്ല ഫുഡ് അല്ല എങ്ങനെയോ അത് പഴകിയതോ ചീത്ത ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളെനിക്ക് തന്നിരിക്കുന്നത് അപ്പം നിങ്ങളെനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം എന്നാ എന്തേലും നഷ്ടമായി എന്തെങ്കിലുമായിട്ട് ചെയ്തു തരണം എന്നു വെച്ചാൽ ഞാൻ ബില്ല് പേ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഫുഡ് ഓഡർ ചെയ്തത് എനിക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഒന്നിങ്കിൽ എനിക്ക് നല്ല ഫുഡ് തരിക അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് പൈസ എനിക്ക് തിരിച്ച് നല്കുക എങ്ങനെയെങ്കിലും എനിക്കതിനേക്കുറിച്ച് നല്ലതാണ് എനിക്ക് ചെയ്തു തന്നേ പറ്റത്തുള്ളു